കണ്ണൂർ ജില്ലയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന കൃഷിരീതികളെന്നു വെച്ചാൽ നെല്ല് പയർ തെങ്ങ് കുരുമുളക് ചേമ്പ് ചേന കാച്ചിൽ ചീര കിഴങ്ങ് പടവലം പപ്പായ കിഴങ്ങുൽപ്പന്നങ്ങൾ എന്നിവയാണ് പിന്നെ കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി കോഴി വളർത്തൽ പന്നി വളർത്തൽ ആട് വളർത്തൽ എന്നിവയും കൂടാതെ കാണാറുണ്ട് കൃഷിക്കായിട്ട് ജനസേചന മാർഗ്ഗത്തിന് കുളങ്ങളും അതുപോലെതന്നെ ജലസംഭരണികളും മഴക്കുഴികൾ എന്നിവയാണ് ഉപയോഗിച്ചിട്ടാണ് ജലം കൃഷിയിടങ്ങളിലേക്ക് എത്തിക്കുന്നത് കർഷകർക്ക് കൃഷിയെ പ്രോ പ്രോത്സാഹിപ്പിക്കാനായി കൃഷിഭവനിൽ നിന്നും വിത്തിനങ്ങളും അതുപോലെതന്നെ വളങ്ങളും കൊടുക്കാറുണ്ട് വിത്തിനങ്ങൾ കൊടുക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിലും കുടുംബശ്രീ തലത്തിലുമാണ് കൊടുക്കാറുള്ളത് കർഷകദിനമായ ചിങ്ങം ഒന്ന് പഞ്ചായത്ത് തലത്തിൽ നല്ല രീതിയിൽ കൊണ്ടാടാറുണ്ട് ക്രി കർഷകർക്ക് ഹാ ആദരവ് ആദരവ് കൊടുത്ത് പൊന്നാട അണിയിക്കാറുണ്ട് പാട്യം പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ എന്നു പറയുന്ന ഒരു കർഷകനുണ്ട് ഏറ്റവും നല്ല കർഷക അവാർഡ് അധികവും പഞ്ചാ പഞ്ചായത്ത് തലത്തിൽ പാട്ടിയം പഞ്ചായത്തിൽ ഉണ്ണികൃഷ്ണന് കിട്ടാറുണ്ട് വാഴകൃഷി വാഴത്തോട്ടം വലിയ ഏക്കർ മൂന്നോ നാലോ സെന്റിൽ മു മുഴുവനും വാഴത്തോട്ടം പയർ ചേമ്പ് ചീര കിഴങ്ങ് കുരുമുളക് കവുങ്ങ് കന്നുകാലി എന്നിവയാണ് ഉണ്ണികൃഷ്ണൻ വളർത്തുന്നത് പിന്നെ അതുപോലെ തന്നെ കന്ന് കാലി വളർത്തൽ ഇതിൻ്റെ അരികത്തുള്ളൊരു കർഷകനുണ്ട് പേര് പപ്പൻ എന്നാന്ന് ആ കർഷകൻ ഏകദേശം പത്ത് പന്ത്രണ്ടോളം പശു ഉണ്ട് അതുപോലെതന്നെ ഇതിൻ്റടുത്ത് വേറൊരു കർഷകനുണ്ട് പേര് പ്രദീപൻ എന്നാണ് അപ്പോൾ ഓർടെ ഫാമിൽ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ തൊഴിലുറപ്പിൻ്റെ അദ്ധ്യക്ഷതയിൽ പശുൻ്റെ ആല വെലിയാല ഉണ്ടാക്കിക്കൊടുത്തിട്ടുണ്ട് ഫാൻ ഫാനും അതുപോലെത്തന്നെ പുൽ തീറ്റയും കർഷ പഞ്ചായത്ത് തലത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പശുക്കളെല്ലാം പാട്ടു കേട്ടുകൊണ്ടാണ് പുല്ല് തിന്നുവ എല്ലാം ചെയ്യുന്നത് ഏകദേശം പന്ത്രണ്ട് പശുക്കളോളമുണ്ട് കൂടാതെ പോത്തൂണ്ട് ഇവർ ഈ പശുവിനെ വളർത്തിയിട്ട് ആ പാലു കൊണ്ടാണ് ജീവിക്കുന്നത്